എൻ്റെ പ്രദേശത്തെ എം എൽ എ അല്ലേൽ എം പി അല്ലേൽ പഞ്ചായത്ത് പ്രസിഡൻറ്റ് എന്നൊക്കെ പറയണത് തികച്ചും രാഷ്ട്രീയ പരമായിട്ടു മാത്രം ഉള്ള ഒരു വ്യക്തികളാണ് അവരുടെ രാഷ്ട്രീയ പാർട്ടിയിൽ പെട്ടവർക്ക് അവരുടെ രാഷ്ട്രീയത്തിന് അനുകൂലമായി നിൽക്കുന്നവർക്ക് അവർക്ക് താളം തുള്ളുന്നവർക്ക് അവർക്ക് ജെയ് വിളിക്കുന്നവർക്ക് അവര് കാണിക്കുന്ന സർവ്വ വിധ അഴിമതികൾക്കും കൂട്ട് നിക്കുന്നവർക്ക് ഇവരിക്കൊക്കെയാണ് ഇവര് സത്യത്തില് എന്തെങ്കിലും കൂട്ടൊളളൂ അല്ലാതെ അവര് ആർക്ക് വേണ്ടിയും ഒരു ജോലിയും ചെയ്ത് കൊടുക്കില്ല ഒരു പരിചയവുമില്ലാത്ത അല്ലെങ്കി ഒരു ബന്ധവുമില്ലാത്ത അത് സ് സ്ഥലത്തെ പ്രദേശത്തെ എന്തെങ്കിലും ഏതെങ്കിലും ഒരു സാധാരണക്കാരന് ഇവരിൽ നിന്ന് എന്തെങ്കിലും സ് അവശ്യങ്ങൾ നേടിയെടുക്കണമെങ്കിൽ അവരുടെ പാർട്ടി മുഖാന്തരം മാത്രേ നടക്കുള്ളു അല്ലാതെ നേരിട്ട് പോയിട്ട് നമുക്ക് ഇവര് ഒരു കാര്യവും ചെയ്ത് തരില്യാ